ആ പറയൂ

ആ എൻ്റെ പേര് ഷിയാസ് എന്നായിരുന്നു ആ ഇത് ആസ്റ്റർ ക്ലിനിക്കിൻ്റെ ഇത് ഓഫീസ് അല്ലേ ആ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പെയിൻ വരുന്നുണ്ടായിരുന്നു ചെസ്റ്റിൽ അപ്പോൾ അതിൻ്റെ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലും പെയിൻ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കയ്യിന് ചെറുതായിട്ട് ഒരു ഷെവറിങ്ങ് ഒക്കെയുണ്ട് ആ കയ്യിന് അതുപോലൊരു ഷെവറിങ്ങ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ചെറിയൊരു ഡൗട്ട് ഇല്ല ഇതിന് മുൻപ് അങ്ങനെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പെയിൻ അപ്പോൾ അതുപോലെ തന്നെ കയ്യിലോട്ടൊക്കെ പെയിൻ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് അറ്റാക്കിന്റെ ഉള്ള ഒരു ഇതുള്ള ആ ചെറിയ അങ്ങനെ അങ്ങനെ ഒരു ചെറിയ ഒരു സംശയം വന്നു അപ്പം അത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വിളിച്ചതായിരുന്നു ഇതിന് മുൻപ് അങ്ങനെ അത്ര സീരിയസ് ആയിട്ടുള്ളൊരു പെയിൻ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ പെയിൻ ഇങ്ങനെ വരൂ ചെറിയൊരു ഇതിങ്ങനെ ഉണ്ട് ലെഫ്റ്റ് സൈഡിലാണ് അത്യാവശ്യത്തിന് അപ്പോ അതിൻ്റെതായൊരു ഒരു ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഓക്കേ അതെ അല്ലേ ഇത് ഇത്ര സീരിയസ് ആയിട്ട് ഇതിപ്പോൾ ഇ സി ജി എടുത്ത് നോക്കിയാലേ അറിയുള്ളൂ അല്ലേ ഓക്കേ ഓക്കേ ആ ഇത് ആ പെയിൻ ആ അത്യാവശ്യം രീതിയിൽ ചെറുതായൊരു പെയിൻ ഉണ്ട് അപ്പോൾ നമ്മളത്രയും നല്ല ആ പെട്ടെന്ന് ഹോസ്പിറ്റൽ എത്തുന്നതായിരിക്കും നല്ലതല്ലേ ഓക്കേ ഓക്കേ അത് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് എന്താണെന്നുള്ള അത്ര കറക്റ്റ് ആയിട്ട് അറിയില്ല അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അതാണ് പ്രശ്നം ഓക്കേ ഒരു കാര്യം ചെയ്യാം ആ ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് എത്താം കുഴപ്പം ഇല്ല വേറെ അത്യാവശ്യം വിയർക്കുന്നുണ്ട് ആ അങ്ങനെ ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആ ഞാനിവിടെ ആ ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിലാണ് ഫർണീച്ചറിൻ്റെ ഒക്കെ ആയിട്ട് ഓക്കേ ഓക്കേ ആ ഓക്കേ ശരിയെന്നാൽ ഓക്കേ ഞാൻ വേഗം എത്താൻ നോക്കാം ഇല്ല അങ്ങനെ കാര്യമായിട്ട് മെഡിസിൻസ് കാര്യങ്ങൾ നമ്മൾ സാദാ രീതിയിലുള്ള മറ്റേ ഇല്ല അല്ല അങ്ങനെ വേറെ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല വേറെ അസുഖങ്ങളൊന്നും ഇല്ല സാദാ ഫീവർ അങ്ങനെയൊക്കെ വരുന്നതല്ലാതെ അങ്ങനെ കാര്യമായിട്ട് ഒരു ഇതൊന്നും വന്നിട്ടൊന്നുമില്ല ഓക്കേ എന്തായാലും ഞാനെന്നാൽ ഹോസ്പിറ്റലിലോട്ട് വരാം ആ എൻ്റെ പേര് ഷിയാസ് ആ വീട് വരുന്നത് ചില്ലോട് പറഞ്ഞ സ്ഥലമാണ് ബത്തേരിക്ക് അടുത്ത് ആ ബത്തേരിക്കടുത്ത് ചില്ലോട് ഓക്കേ ഓക്കേ ശരിയെന്നാൽ ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരാം